ആധുനിക ലോകത്ത് മലയാള ഭാഷ നേരിടുന്ന വെല്ലുവിളികൾ ഒത്തിരിയാണ് കാരണം മലയാളം ഭാഷ മര്യാദക്ക് എഴുതാൻ അറിയാവുന്ന കുട്ടികൾ സത്യം പറഞ്ഞാൽ കുറവാണ് മാത്രമല്ല മിക്ക കുട്ടികളും ഇവിടെ അല്ല വളർന്നത് മിക്കവരും വിദേശത്ത് വളർന്നവരോണ്ട് അപ്പം മലയാളികൾക്ക് പോലും മലയാള ഭാഷ സംസാരിക്കാനും അതിന് ഉള്ള അവസരം കിട്ടുന്നില്ല മാത്രമല്ല മലയാള ഭാഷ മറന്നു പോകുന്ന ചിലരോട് നമ്മൾ മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ പോലും അതുപോലും അറിയത്തില്ല കാരണം കുട്ടികൾ ഇപ്പം വളരുന്നത് ഇംഗ്ലീഷ് മീഡിയങ്ങളിലാണ് കൂടുതലായിട്ടും ഇംഗ്ലീഷ് ആയിട്ടുള്ള നമ്മൾ മാതാപിതാക്കൾ ആണെങ്കിൽ പോലും പറയും മലയാളം പഠിച്ചിട്ട് കാര്യമില്ല ഇംഗ്ലീഷ് പഠിക്കണം പുറത്ത് പോകണം പുറത്ത് പോകണമെങ്കിൽ നമുക്ക് വേറെ ഒരിടത്ത് പറയണമെങ്കിൽ ഇംഗ്ലീഷ് വേണമെന്ന് പറയും നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ പോലും മലയാളം സംസാരിക്കുന്നവർ പോലും നമ്മൾ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് ചില ഇംഗ്ലീഷ് വാക്കുകളാണ് കയറി വരുന്നത് നമുക്ക് ഇപ്പോൾ ആരും തന്നെ പൂർണമായും മലയാളം സംസാരിക്കുന്നവരില്ല ഇതൊക്കെ മലയാള ഭാഷകൾ നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ് നാടിൻ്റെ മണമോ ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം മലയാള ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാകാറില്ല അല്ലെങ്കിൽ പൂർണമായും മലയാളം ആരും പറയുന്നില്ല അപ്പം ഇതൊക്കെ മലയാള ഭാഷകൾ നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ് കുറച്ച് നാൾ കഴിയുമ്പം മലയാളം ഓർത്തിരിക്കുന്നവരുണ്ടാകുമോ എന്നുള്ള വെല്ലുവിളികൾ പോലും മലയാള ഭാഷക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നുണ്ട്